ആ ഗുഡ് മോണിങ്

വിശേഷങ്ങളൊന്നും തന്നെയില്ല പിന്നെ പോഷൻസക്കെ എക്സാം എക്സാമിനുള്ള തയ്യാറെടുപ്പാണ് കുട്ടികൾ കേട്ടോ ആ നമുക്കിനി സെകൻഡ് പീര്യോഡിക്കാണ് വരുക ആ അല്ല ട്വൊൻറ്റി ഫൈവ് മാർക്കിന് സെകൻഡ് പീര്യോടിക്കാണ് വരുന്നത് ആ അപ്പോൾ ഞങ്ങൾ അതിനുള്ള പക്ഷേ ബാക്കിലോട്ട് നിൽക്കുന്ന ധാരാളം കുട്ടികളുണ്ട് ധാരാളം കുട്ടികളുണ്ട് തീർന്നോണ്ടിരിക്കുന്നു നമുക്ക് എന്തുവായലും ഡിസാ ജെനുവരീലേയുള്ളൂ ക്സാമ് സെക്കൻറ്റ് പീര്യോടിക്ക് പീര്യോടിക്ക് ടെസ്റ്റ് ഞങ്ങൾക്ക് ജെന്വരീലാണ് നമുക്കുള്ളത് പക്ഷേ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ബാക്കിലോട്ട് നിൽക്കുന്ന കുട്ടികൾ നിന്ന് ഒന്ന് മൂന്നോട്ട് കൊണ്ട് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അത് തൻ അതിനുള്ള പരിഹാരങ്ങളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനുള്ള കുട്ടികളെ നമ്മൾ ക്ലാസീന്ന് തെരഞ്ഞെടുത്ത് കൊണ്ട് വരുന്നു എന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കൊടുക്കും എന്നിട്ട് വർക്ക് കൊടുക്കുന്നതല്ല അവിടെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ തന്നെ ആ സീറൊ പിരീടക്കെ ആകുമ്പം ആ സീറൊ പിരീടൊക്കെ ആകുമ്പോഴ്ത്തേന് പിന്നിടക്ക് ഫ്രീയക്കെ വരുമ്പോഴ്ത്തേനും മറ്റ് ടീച്ചേഴ്സിൻ്റട്ത്ത് ചോദിച്ച് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി ആ അതേ അതേ കൊണ്ട് പോയി എല്ലാ സുബ്ജെക്റ്റും ചില കുട്ടികൾക്ക് മാക്സ്സ് മാത്രമുള്ള കുട്ടികളുമുണ്ട് അപ്പം അവർക്ക് അങ്ങനുള്ള കുട്ടികളെ അല്ലാതെ സമയങ്ങളിൽ കൊണ്ട് പോയി അവർക്ക് ഒത്തിരി നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ പോഷൻസിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ കുറച്ച് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന രീതീൽ പഠിപ്പിച്ച് പഠിപ്പിക്കുന്നു പക്ഷേ മലയാളമാണ് ഞാൻ പഠിപ്പിക്കുന്നത് അത് കൊണ്ട് ഒരു ഒരു ഏഴ് എട്ട് സെൻ്റെൻസ്സ് വരുന്നതിനെ നമ്മൾ ചുരുക്കി അവർക്ക് പഠിപ്പിക്കുന്ന രീതീലാക്കി കൊടുക്കാൻ എന്നുള്ളതേ ഉള്ളു അവർക്ക് പിന്നെ എഴുതി പഠിപ്പിക്കുക എഴുതി പഠിപ്പിക്കുക പറ്റത്തില്ല അതേതെ അപ്പോൾ അങ്ങനുള്ള റെമഡിയാണ് നോക്കുന്നത് ടീച്ചറങ്ങനെ ടീച്ചറങ്ങനാണോ ആ പേരൻ്റ്സിന് സന്തോഷമാണ് ടീച്ചറെങ്ങനാണ് ആ ആ ആ ആ ആ ആ അതെ അതെ അതെ അപ്പോൾ ടീച്ചറ് ആ അത് എനിക്ക് തോന്നീ ഈ ലാങ്വേജ് ലാങ്വേജ് ഇങ്ക്ളീഷ് മലയാളം ഹിന്ദി ലാങ്വേജ്കളെല്ലാം എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്താ ആ എഴുത്തിലൂടെ കൊണ്ട് വരണം അവരാ വാക്കൊക്കെ വായിക്കാൻ അറിയത്തില്ല എന്നുള്ളതാണ് ഏറ്റോം പ്രശ്നം അപ്പം അത് വായിക്കാനും എഴുതാനും അടിസ്ഥാനപരമായി കൊടുത്തെങ്കിൽ മാത്രമേ ഇവർ മുന്നോട്ട് വരികയുള്ളു അതുമല്ല നമുക്കൊത്തിരീ പോഷൻസിങ്ങനെ ആൻസറ് ഒത്തിരി ഉണ്ടെങ്കിൽ അവരെ മാത്രമല്ല ആൻസറൊത്തിരി ഉണ്ടെങ്കിൽ അതിനെ ഒരിച്ചിരി സെൻ്റെൻസായിട്ട് ചുരുക്കിക്കൊണ്ട് ഇങ്ങനുള്ള കുട്ടികളെ കൊണ്ടുവരാൻ ആ പാ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ആ പേരൻസ്സ് നല്ല സപ്പോ സപ്പോർട്ടാണ് ആ നല്ല സപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞ നമ്മൾ പറഞ്ഞിഷ് ആ നമ്മൾ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ വിടണ്ട സ്കൂളിത്തന്നെ അതിൻ്റെയുള്ള റെമഡിയൽ അല്ല റെമഡ്യൽ ക്ലാസ്സ് നമുക്ക് നമ്മളന്നെ കൊടുക്കുന്നുണ്ട് അതോണ്ട് ട്യൂഷൻ വേണ്ട കുട്ടികൾക്ക് ബേർടനാ എന്തോന്ന് വെച്ചഴിഞ്ഞാൽ ഭാരം എല്ലാം കൂടെ ഇപ്പം സ്കൂളും ട്യൂഷനും എല്ലാം കൂടെ ഭാരമാവുന്നു കൊണ്ട് അവരെ വീട്ടിലിരുത്തി തന്നെ വീട്ടിൽ അവരെ ശ്രദ്ധിക്കാൻ നമ്മൾ ആ സ്കൂളിൽ ആ ആ ചെയ്യുന്നു അതേ അതേ അതേ ആ ആ ആന്നാന്നാന്ന് ആ അപ്പങ്ങനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ

അല്ല എനിക്ക് തോന്നി മറ്റുള്ള വിഷയത്തെകാട്ടി പറഞ്ഞോളൂ ആ നമുക്ക് ആ അന്നേരം ഇങ്ങനുള്ള കാര്യങ്ങൾ ടീച്ചറുന്നോക്കാം നമുക്കും നോക്കാം ഓക്കേ ഓക്കേ ഓക്കെ താങ്ക് യൂ ഓക്കേ താങ്ക് യൂ ആ താങ്ക് യൂ താങ്ക് യൂ